ആ ഗുഡ് ആഫ്റ്റർനൂൺ സർ സർ ഞാൻ പാറത്തോട് നിന്നായിരുന്നു വിളിക്കുന്നത് സാറ് എസ് ഐ ആയിരുന്നോ ആ സാർ ഞാൻ ഈ മേഖലയിൽ ഉണ്ടായ ഈ അടുത്ത ഇടയിൽ നടന്ന കുറച്ച് പ്രശ്നങ്ങളും ഞങ്ങൾ അതിൽ നേരിടും ബുദ്ധിമുട്ടിനേപ്പറ്റി സംസാരിക്കാൻ വിളിച്ചതായിരുന്നു ഞാൻ പാറത്തോടാണ് കുന്നത്തടി പാറത്തോട് അ ഇടുക്കി ജില്ല എൻ്റെ പേര് അമൽ എന്നാണ് സാർ ഞാൻ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നു സാർ കഴിഞ്ഞ ദിവസം ഞാൻ പാറത്തോട് ഇങ്ങനെ കടയിൽ സാധനം മേടിക്കാനായിട്ട് പോകുകയായിരുന്നു അപ്പം കുറച്ച് വിദ്യാർത്ഥികൾ അതിലേ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് ഇങ്ങനെ ശ്രദ്ധയിൽ പെട്ടിരുന്നു അപ്പം അവരുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സാധനം മേടിച്ചു അടുത്ത കടയിലോട്ട് പോകുന്നു അപ്പം അവർ അതിലേ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സാധനം എല്ലാം മേടിച്ച് പതിയേ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരു ചെറിയ കയറ്റമുണ്ട്

അപ്പം ഇവന്മാർ കയ്യിൽ എന്തോ ഒരു ചെറിയ പൊതി എനിക്കാദ്യമേ ശ്രദ്ധയിൽ പെട്ടിരുന്നു അപ്പം എനിക്ക് മനസിലായത് എന്തോ കഞ്ചാവോ അതുപോലെത്തെ എന്തോ ഒരു പൊതികളാണ് ഇവന്മാർ ഇവന്മാർ ചെറിയ പൈസ മേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൊതിയിൽ നിന്ന് സാധനം എടുത്ത് ഒരു ചെറിയൊരു ത്ലാഷും ഇവന്മാരുടെ കയ്യിൽ ഉണ്ട് അപ്പം അങ്ങോട്ടുമിങ്ങോട്ടും എടുത്ത് വീതിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അപ്പം അത് കഞ്ചാവാണെന്ന് ഉള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു പിന്നെ ആ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നത് കൊണ്ട് ആ സമയം അവന്മാരോട് ചോദിച്ചില്ല എങ്ങനെയാണ് അവന്മാരുടെ പ്രതികരണ ശേഷി എന്നറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ അന്നേരം പ്രതികരിച്ചില്ല അതിന് ശേഷം വീട്ടിൽ പോയി എന്തോ അതിനു ശേഷം വീട്ടിൽ പോയി ഞാൻ വീണ്ടും കടയിൽ വരേണ്ട ആവശ്യമുണ്ട് അപ്പം ഇവന്മാർ വീണ്ടും വേറെ കുറച്ച് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളും ഒരു ഇച്ചിരെ പ്രായവായ ആൾക്കാരുവെല്ലാം അവന്മാരുടെ ചുറ്റു വട്ടത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഒരു വിൽപ്പനയുടെ സാഹചര്യമായിട്ടാണെനിക്ക് മനസിലായത് അത് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളായിരുന്നു അതിൽ ഒരു പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളുൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇതൊരു സ്കൂൾ സ്കൂളിനോട് ചേർന്ന് തന്നെ ആയിരുന്നു ഈ പ്രശ്നം കാണുന്നത് സ്കൂളിൻ്റെ പരിസരത്ത് ഓക്കേ അപ്പം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അല്ലെങ്കിൽ സാറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെയാണെങ്കിലും നമുക്ക് ഇവിടെ എന്തെങ്കിലും ക്ലാസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ

അതെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരോട് ഒന്ന് പ്രതികരിക്കാൻ ആണെങ്കിൽ പോലും പേടിയാണ് ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ടിവിയിൽ എല്ലാം കാണുന്ന വർത്തയനുസരിച്ച് ഇവന്മാരുടെ പ്രതികരണശേഷി എന്താകുന്നു എന്ന് നമുക്ക് മനസിലാവുന്നില്ല അപ്പം നമുക്ക് ചെന്ന് ഒന്ന് തടയാനൊരു ബുദ്ധിമുട്ടാണ്

അതേല്ലേ അപ്പം അതാണ് പിന്നെ ഈ അതെ അതെ ഇത് ചില അതെ അതെ ഞങ്ങളുടെ ഈ മേഖലയിൽ ഒക്കെ ഇതിൻ്റെ മേഖലയിൽ ഒക്കെ ഇതിൻ്റെ ലഭ്യത ഭയങ്കര കൂടുതൽ ആണെന്നാണ് മനസിലാകുന്നത് സാറേ

അതെ മ് അതെ ഇവർക്ക് എത്തിച്ച് കൊടുക്കുന്ന വലിയാൾക്കാരേ നമുക്ക് കണ്ട് പിടിക്കാനെന്തെങ്കിലും വേറേ മാർഗങ്ങൾ ഉണ്ടോ ഇവരെല്ലാം ഇതിൻ്റെ ഒരു ചെറിയ കണ്ണികൾ ആയിരിക്കും അല്ലേ ഈ വിദ്യാർത്ഥികളൊക്കെ

അതെ

അതെ അത് ശരിയാണ് സാറിൻ്റെ ഒക്കെ ഒരു രീതിയിൽ പറയുമ്പോളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം എങ്ങനെ ഇത് പല കടകൾ കേന്ദ്രീകരിച്ചും ഈ വിദ്യാർത്ഥികൾ സംഘടിക്കുന്നതായിട്ടാണ് കാണുന്നത് നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ ആ ഒരു തുടക്കം എന്ന രീതിയിൽ കടകളെങ്കിലും കേന്ദ്രികരിച്ചൊരന്വേഷണം ആരംഭിക്കാൻ പറ്റുമോ മനസിലായി മനസിലായി അപ്പം ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം കാണുവാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും രീതിയിൽ അതിന് മനസിലായി സാറേ ഓക്കേ അപ്പം സാറേ ഒത്തിരി നന്ദി ഉണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക്യൂ സാർ